ആരോഗ്യമുള്ളവരായിരിക്കാൻ നൃത്തം എങ്ങനെയാണ് ആളുകളെ സഹായിക്കുന്നത് എന്നു വച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മളിപ്പം ജിമ്മിൽ പോവും പിന്നെ സൂംബ അങ്ങനെ അതായത് യോഗ കളരി അങ്ങനെയൊക്കെ പഠിക്കാൻ പോകുമല്ലോ അപ്പോൾ അതൊക്കെയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എന്താ പറയുക ഭക്ഷണം ഒക്കെ കഴിച്ച് ഒരു സ്ഥലത്തുതന്നെ നിക്കുമ്പോൾ നമുക്ക് തടി അതായത് ഫാറ്റ് കൂടും കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ കൂടും അപ്പോൾ നമ്മുടെ ശരീരം ഇങ്ങനെ ഇളകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മെലിയുകയും ചെയ്യും നമ്മൾ ഫാറ്റ് കൂടി ഭയങ്കര തടിക്കുകയൊക്കെ ചെയ്യുമ്പം അപ്പം അതായത് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മെലിയുകയൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ അതുപോലെതന്നെ ഒരു എക്സർസൈസ് പോലെ തന്നെയാണ് ഈ നൃത്തം എന്നു പറഞ്ഞ സംഭവം നമ്മുടെ ശരീരം ഒക്കെ ഇളകിയിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫാറ്റ് ഒക്കെ ഉരുകിപ്പോവും പിന്നെ പിന്നെ ചിലവരൊക്കെ നൃത്തം എന്താ പറയുക അവരൊരു പാഷനായിട്ട് ചെയ്യുന്നവരാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ചെയ്യുന്നതാണ് നൃത്തം ആളുകൾക്ക് സന്തോഷം തോന്നിക്കുന്നത് എന്തുകൊണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമുക്കത് കാണുമ്പം തന്നെ ഒരു പാട്ട് ഇട്ട് ഒരാൾ എന്നാൽ അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുമ്പോൾ നമുക്ക് തന്നെ അവരോടൊരു ആരാധന ഒക്കെ തോന്നിപ്പോവും അതായത് ഒരു പാട്ട് ഉണ്ടെങ്കിൽ അതിന് ഡാൻസ് വേണം എന്നാണല്ലോ ഡാൻസ് ഉണ്ടെങ്കിൽ ഒരു രസമാണല്ലോ